അടുത്തുള്ള പട്ടണങ്ങളിലേക്ക് പോകുന്നുണ്ടെങ്കിലോ ഒന്നോ രണ്ടോ തവണയൊക്കെയാണ് പോകാറുള്ളത് പിന്നെന്താന്ന് വച്ചിട്ടുണ്ടെങ്കില് ദിവസത്തിലാണെങ്കിൽ ഒരു തവണയും മാസത്തിലൊക്കെയാണെങ്കിൽ ഒരു ആറ് തവണയൊക്കെ പട്ടണ ടൗണിലേക്ക് പോകുന്നുണ്ട് അത് എന്തിനുവേണ്ടീട്ടാന്നു വെച്ചാൽ ചിലപ്പോൾ സാധനങ്ങൾ മേടിക്കാനായിരിക്കും അല്ലെങ്കിൽ പഞ്ചായത്തിലേക്ക് എന്തേലും ആവശ്യത്തിനൊക്കെ പോകുന്നയായിരിക്കും അല്ലെങ്കില് തയ്ക്കാൻ കൊടുക്കാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പോന്നത് പിന്നെ ആരുടെയെങ്കിലും വീട്ടിൽ പോകണമെങ്കിൽ അങ്ങനെ പോകും അങ്ങനെ ഒക്കെയായിരിക്കും ടൗണിലേക്ക് പോകുന്നത് അങ്ങനെ എന്തേലും സാധനം മേടിക്കാനോ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് മാത്രാണ് ടൗണിലേക്കൊക്കെ പോകാറ് പിന്നെ അതുപോലത്തന്നെ ആരുടെയെങ്കിലും വീട്ടിലേക്കൊക്കെ പോകണമെങ്കിലും ഇങ്ങനെ പോകും ടൗണിലേക്ക് പോകാറുണ്ട്